മലയാളഭാഷേനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള ഭാഷ ആദ്യമൊക്കെ നല്ല രീതിയിൽ എല്ലാവരും സംസാരിക്കും എല്ലാ കാര്യങ്ങളും പറയുക എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഷയായിരുന്നു മലയാളം പക്ഷേ ഇപ്പോൾ ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യം നിന്ന് പോകുന്നൊരു കലാരൂപം പോലെയാണ് മലയാള ഭാഷ നിന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും അങ്ങനെ മലയാളം സ്ഫുടമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എല്ലാം ഇംഗ്ലീഷ് കലർന്നും ഇപ്പോൾ ഹിന്ദി കലർന്നൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ മലയാളഭാഷയെ നമ്മൾ ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോഴൊക്കെ എന്ന് വെച്ച്കഴിഞ്ഞാൽ ഓരോ കവിതകളൊക്കെ വായിക്കുമ്പോൾ നല്ല രസമാണ് ഓരോ ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് അവരെഴുതി വെച്ചിരിക്കുന്നത് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ രചിക്കാൻ പറ്റിയ ഒരാൾക്കാർ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായി പോയി ഓ എൻ വി കുറുപ്പ് അങ്ങനെ പലതരം ആൾക്കാരുണ്ട് ബഷീർ അങ്ങനെ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു കവികൾ പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല മലയാളത്തിൽ ഒന്ന് എന്തെങ്കിലും ഒരു കവിത എഴുതാൻ പോലും ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്